ഇപ്പോള് മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മള് സംസാരിക്കാന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മടെ വ്യക്തിത്വത്തെയും നമ്മുടെ ചരിത്രത്തെയും അത് ഒരുപാട് ഇൻഫ്ലുവന്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോള് അത് അടുത്ത തലമുറയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ ഒരു ദൗത്യമായിട്ടാണ് ഞാന് കാണുന്നത് അപ്പോള് അതിനായി ആദ്യം തന്നെ ഒരു കുട്ടി കുട്ടിയില് മലയാള ഭാഷ വരുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നായിരിക്കും അപ്പോള് കുട്ടി ഇപ്പോള് കേരളത്തിലാണെങ്കില് കുഴപ്പമുണ്ടാവില്ല ഇപ്പോള് പുറംരാജ്യങ്ങളിലോ അഥവാ അന്യ സംസ്ഥാനങ്ങളിലോ ആണ് കുട്ടി വളരുന്നേന്നുണ്ടെങ്കില് അവരുടെ മാതാപിതാക്കളായിരിക്കും അവരുടെ പ്രധാന രീതി മലയാളം പഠിക്കാന് ഇപ്പോള് അവര് കുട്ടിയായിരിക്കുമ്പോള്ത്തന്നെ അവരെക്കൊണ്ട് കുറച്ചെങ്കിലും സംസാരിപ്പിച്ചും അവരെക്കൊണ്ട് എഴുതാനും വായിക്കാനും ചെറുതായി പഠിപ്പിച്ച് തുടങ്ങുമ്പോള്ത്തന്നെ അവര്ക്ക് അവരുടെ ഉള്ളില് മലയാള ഭാഷ വരുന്നുണ്ടാവും

അതിനായി അവര്ക്ക് മലയാളത്തില് കഥ പറഞ്ഞുകൊടുക്കുകയോ മലയാളം പറയിപ്പിക്കാന് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് ആദ്യ ഘടകമായി എനിക്ക് തോന്നുന്നു പിന്നെ സ്കൂളില് ചേര്ക്കുമ്പോള്ത്തന്നെ മലയാളം ഭാഷയുള്ള ഒരു സ്കൂളില് ചേര്ത്താല് അത്രയും നന്നായിരിക്കും അപ്പോള് കേരളത്തില് കേരളത്തില് എന്നല്ല പുറത്ത് തന്നെ ഇപ്പോള് അന്യ സംസ്ഥാനങ്ങളില് മലയാളം പഠിപ്പിക്കുന്ന ക്ലാസുകളും സ്കൂളുകളുമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോള് ഇതെല്ലാം മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോള് അവിടേക്ക് നമ്മുടെ മക്കളെ വിട്ട് പഠിപ്പിക്കുകയും പോവാന് അനുവദിക്കുകയും ചെയ്യുകയാണെങ്കില് മലയാള ഭാഷ നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ സംരക്ഷിക്കാം പിന്നെ ഇപ്പോള് കുട്ടികളാവട്ടെ ആരായാലും കാര്ട്ടൂണും സിനിമയുമെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പോള് അത് മലയാളത്തില് കാര്ട്ടൂണ് കാണിപ്പിക്കുകയും അല്ലെങ്കില് മലയാളം സിനിമ കാണിക്കുകയും മലയാളം ബുക്ക്സ് വായിക്കാന് പുസ്തകങ്ങള് വായിക്കാന് കൊടുക്കയോ ചെയ്താല് ഇതെല്ലാം മലയാളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് പറയുവാണെങ്കില് സോഷ്യല് മീഡിയ വഴിയും ന്യൂസ് വഴിയും എല്ലാമൊന്ന് മലയാളത്തില് കുട്ടിയെ ഒന്ന് ചെറുപ്പത്തില് തന്നെ കാണിച്ച് കൊടുക്കുകയാണെങ്കില് അവരുടെ ഉള്ളില് മലയാള ഭാഷ അപ്പോള്ത്തന്നെ ചേര്ന്ന് കിടക്കാം അപ്പോള് അതുപോലെ നമുക്ക് തലമുറകളിലോളം ഈ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിച്ച് കൊണ്ടും പോവാം ഈ മലയാള ഭാഷയെ